ഗ്രാമങ്ങളിൽ ഗ്രാമ ഭംഗിയാസ്വ ഗ്രാമ ഭംഗി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും എൻ്റെ നാടിൻ്റെ ഭംഗി എന്ന് പറയുന്നതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കാരണം മലകളുണ്ട് ചുറ്റും മലകളുണ്ട് വെള്ളച്ചാട്ടമുണ്ട് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ വനം വനമുണ്ട് പിന്നെ നല്ല മനുഷ്യർ നല്ല വ്യക്തികൾ പിന്നൊരുപാട് അവനവൻ്റെ സന്തോഷോം സങ്കടങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന വ്യക്തികളുണ്ട് അപ്പം ഇതൊക്കെ ഒരുപാട് തന്നെ മിസ് ചെയ്യും എനിക്ക് ഒരു നഗരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പരസ്പര ബന്ധങ്ങൾ കുറയും ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നത് പിന്നെ ആൾക്കാരുടെ ഇടപെടലുകൾ ഒക്കെ ചിലപ്പം നമുക്ക് വിഷമത്തിന് കാരണമാകും കാരണം മതിലുകൾക്കുള്ളിലുള്ള സംസ്കാരമാണ് നഗര സംസ്ക്കാരം എന്ന് പറയുന്നത് പരസ്പ്പരം മതിലുകൾക്കുള്ളിൽ ജീവിക്കുന്ന ഒരു സംസ്കാരം അത് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെയെന്ന് പറയുമ്പം കുറച്ചൂടെ ഫ്രീയായിട്ട് നമുക്കിടപെടാം ഫ്രീ ആയിട്ട് മറ്റുള്ളവരോട് പരസ്പ്പരം അറിയാം പരസ്പ്പരം പ്രശ്നങ്ങൾ പങ്ക് വെക്കാം ഒരു വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കറിയാം അവർ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് വിശ്വാസമുണ്ട് ഇപ്പം നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾ സംഭവിക്കുന്നതിനിടയിലും ഗ്രാമപ്രദേശത്ത് വസിക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന താല്പര്യപ്പെടുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് അപ്പം എന്താ പറയുക ഇവിടെ ആയിരിക്കാനായിട്ടാണ് കൂടുതലും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പിന്നിവിടുത്തെ കാലാവസ്ഥ വളരെ ഫ്രഷായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കാരണം ഇഷ്ടം ഒരുപാട് മരങ്ങളുള്ള ആ സ്ഥലത്ത് അതുകൊണ്ട് ഒരുപാട് ഫ്രഷ് എയറ് കിട്ടുന്നുണ്ട് അപ്പം നല്ല ശുദ്ധവായുവാണ് പിന്നെ മൃഗങ്ങളുടെ മൃഗങ്ങളുടെ അല്ല പക്ഷികളുടെ കളകൂജനവും പ്രകൃതിയുടെ താരാട്ടും കളകളം ഒഴുകുന്ന നദിയുടെ വശ്യതയും ഒക്കെ എന്നെ ഈ ഗ്രാമത്തിൽ പിടിച്ച് നിർത്തുവാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ നഗരങ്ങളിലുള്ള നഗരങ്ങളിലേക്ക് പോകുമ്പം യാത്ര സൗകര്യം കൂടുമെങ്കിലും എനിക്ക് അങ്ങനെ പോകാനായിട്ട് താൽപ്പര്യമില്ല കാരണം അന്തരീക്ഷം മലിനമാണ് പിന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ചെയ്യാനായിട്ട് മേല അപ്പം എനിക്കൊരുപാട് താൽപ്പര്യമില്ല ഇവിടെ ആയിരിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത് നല്ല രീതിയിൽ ഇവിടെ തന്നെ തുടരാനായിട്ടും ഞാനാഗ്രഹിക്കുന്നു നഗരങ്ങളിലേക്ക് കുടി കുടിയേറ്റങ്ങൾ കൂടുമ്പോൾ ഗ്രാമപ്രദേശങ്ങൾ തഴയപ്പെടുകയല്ലേ പക്ഷേ ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗി ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ കിട്ടുവൊള്ളു ഇവിടെ സന്തോഷത്തോടു കൂടി ആയിരിക്കുവാൻ കൂടുതൽ സമയം ആയിരിക്കുവാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു